തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടൂറിസം ബീച്ചുകളും ഹിൽ സ്റ്റേഷനുകളും പിന്നെ ചരിത്ര സ്മാരകങ്ങൾ അതൊക്കെ വിച വിനോദ സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്നതാണ് ടൂറിസം മേഖലയിലെ വരുമാനവും തൊഴിലവസരങ്ങളും ധാരാളമായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഐ ടി മേഖലയെ കുറിച്ചാണ് ടെക്നോപാർക്ക് കഴക്കൂട്ടത്തെ ടെക്നോപാർക്ക് തിരുവനന്തപുരത്തൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് നിരവധി പ്രമുഖ ഐ ടി കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഇവിടെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടൊന്നുള്ളത് ആയുർവേദമാണ് ആയുർവേദം ചികിത്സകളും ഉൽപ്പന്നങ്ങളും റിസോർട്ടുകളും ക്ലിനിക്കുകളും ഒരുപാട് വിദേശികളെ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഇത്രയൊക്കെയാണ് തിരുവനന്തപുരത്തെ വികസനം ബിസിനസുകളെ കുറിച്ച് പറയാനുള്ളത്